വസ്ത്രങ്ങൾ ഞാൻ കഴുകുന്നത് എനിക്കിപ്പോ എനിക്ക് എത്ര വസ്ത്രം കെഴുകാനുണ്ട് എന്നു നോക്കീട്ടു അതിനു അനുസരിച്ചു വെള്ളം എടുക്കും അതിനു മാത്രായിട്ടു ഒരു ബക്കറ്റിൽ എടുത്തിട്ടു വസ്ത്രങ്ങൾ കെഴുകും ഇനീപ്പോ മഴക്കാലത്തു ആണെങ്കിൽ മഴവെള്ളം ശേഖരിച്ചു ബാക്കി നമ്മൾ കിണറ്റിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിനു പകരം അതു അത്രേയും നമുക്ക് അവിടെ സംരക്ഷിക്കാലോ അതിനു പകരം മഴവെള്ളം ഉപയോഗിച്ചു വസ്ത്രങ്ങൾ കഴുകാറുണ്ട് അതുപോലെ തന്നെ വേനൽ കാലം ആണെങ്കിൽ സൂര്യപ്രകാശത്തിൽ തന്നെ വസ്ത്രങ്ങൾ ഉണക്കും പക്ഷേ മഴക്കാലത്ത് ആണെങ്കിൽ വീടിനുള്ളിൽ വസ്ത്രങ്ങൾ ഇടും വീടിനുള്ളിൽ ഒക്കെ വസ്ത്രങ്ങൾ ഇടും അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങൾ കഴുകിയ വെള്ളം കൊണ്ട് നമ്മൾ പച്ചക്കറിക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്ക് ഒക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും